ആ അതെയതെ പറയൂ ആ ഓക്കെ ആ ഓക്കെ ആ അപ്പം നിങ്ങൾക്ക് ആനുവൽ ഇൻകം എത്രയുണ്ട് ആ ഓക്കെ ആ

ആ ഓക്കെ ഓക്കെ ഉണ്ട് ആ ഇപ്പം നിങ്ങൾ ഇപ്പം എത്ര എമൗണ്ട് വേണ്ടിവരും ആ ഓക്കേ അപ്പം പലിശ വരുന്നതിപ്പം കാർഷിക പെൻഷൻ അല്ല കാർഷിക വായ്പ എടുക്കാം അപ്പം നിങ്ങൾക്കെന്തെങ്കിലും ഈട് വയ്ക്കേണ്ടിവരും സ്ഥലമൊക്കെയുണ്ടെങ്കിൽ ആ ഗോൾഡുണ്ട് അപ്പം എത്ര എത്ര ഉണ്ടാവും ഇപ്പോൾ പവൻ ആ അപ്പം ആ ഇവരിപ്പം എട്ടു ശതമാനമാണ് വരിക

ആ ഓക്കെ ഓക്കേ

ആ ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടെനിന്നെന്തായാലും എടുക്കാൻ പറ്റും കാരണം എട്ടുശതമാനം പലിശ വരുന്നത് അതിപ്പം മാസത്തേക്ക് വേണേ മാസത്തേക്കാക്കിത്തരാം അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ ആക്കിത്തരാം അല്ലെ വൺ ഇയർ ആക്കിത്തരാം അതൊന്നും പ്രശ്നമില്ല അതിപ്പോൾ ഡൗൺ പേയ്മെൻറ് വേണമെങ്കിൽ അടക്കാം അതൊന്നും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്കുള്ള ആ നിങ്ങൾക്കിപ്പോൾ ഉള്ളപോലെ അടച്ചു തീർത്താലും മതി ഇപ്പോൾ ഫുള്ളായിട്ട് അടച്ചു തീർക്കണമെങ്കിൽ ആ ഇത്ര കാലതാമസം കൊണ്ടടയ്ക്കണം എന്നില്ല എത്ര ഇതുകൊണ്ട് വേണമെങ്കിലും അടച്ചുതീർക്കാം ഇപ്പോൾ ഒരു വർഷം കൊണ്ട് തീർക്കണമെങ്കിൽ ഒരു വർഷം കൊണ്ട് തീർക്കാം

വരുന്ന ദിവസം ഇവിടെ വന്നിട്ട് റിസപ്ഷനിൽ പറഞ്ഞാൽ മതി ആ ആ മതി പിന്നെ രണ്ടു ഫോട്ടോ കൊണ്ടുവരണം പാൻ കാർഡ് കൊണ്ടുവരണം ആധാർ കാർഡ് കൊണ്ടുവരണം ഏയ് വേണ്ട വേണ്ട പിന്നെ ഗോൾഡും പിന്നെ മുദ്രപേപ്പർ വേണ്ട മുദ്രപേപ്പർ ഇവിടെ നിന്നു തരും ആ ഇവിടെ നിന്നു തരും പിന്നെ ആധാറും രണ്ട് ഫോട്ടോയും ആ പിന്നെ പാൻ കാർഡും ആ ഇത്ര മതി പിന്നെ ഇവിടുത്തെ പാസ്ബുക്ക് ഉണ്ടെങ്കിൽ ആ അതിൻ്റെ കോപ്പിയും കൂടി ആ വേറൊന്നും വേണ്ട

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ